ഇപ്പോൾ ആധുനിക ലോകത്ത് മലയാള ഭാഷ നേരിട്ട് കൊണ്ടിരിക്കുന്നത് വളരെ വലിയ വെല്ലുവിളികളാണ് കാരണം നമ്മുടെ മലയാള ഭാഷ നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണ് ആശയ വിനിമയങ്ങൾ ഇല്ല എന്നുള്ളത് കാരണം പുതിയ തലമുറയിലെ കുട്ടികളെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ അവരോട് വർത്താനം പറയുകയോ കമ്യൂണിക്കേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല മാതാപിതാക്കളോട് ആയാലും മാതാപിതാക്കൾ ഇവരോടായാലും ഒന്ന് തുറന്ന് സംസാരിക്കുകയോ മിണ്ടുകയോ ചിരിക്കുകയോ കളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ എല്ലാവരും മൊബൈൽ ഫോണിലും ലാപ്പ്ടോപ്പ് കമ്പ്യൂട്ടർ എന്നിവയിൽ അടിമപ്പെട്ട് കിടക്കുകയാണ് കാരണം കുട്ടികളിൽ കൂടുതൽ പേരും ഓൺലൈൻ ഗെയിമിലൂടെയും കമ്പ്യൂട്ടർ ഗെയിമ് മൊബൈലൊള്ള ഗെയിമ് എന്നിവയിലൂടെ പുറകെ അവർ അതിൻ്റെ പുറകെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരോട് മിണ്ടാൻ മറ്റുള്ളവരോട് മിണ്ടാൻ അത്ര താൽപ്പര്യം കാണിക്കുന്നില്ല കാരണം അവരതിൻ്റെ ഉള്ളിൽ അഡിക്റ്റ് ആയിട്ടിരിക്കുകയാണ് കൂടാതെ തന്നെ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന വീടുകളിലായാലും കുട്ടികൾ തനിച്ചായിരിക്കും ഇരിക്കുന്നത് അവർ വീടിൻ്റെ ഉള്ളിൽ തനിച്ചിരുന്ന് തനിച്ചിരുന്ന് പഠിച്ചത് കാരണം അവർക്ക് പുറത്തിറങ്ങി മറ്റുള്ളവരോട് മിണ്ടാനോ അവരോട് ഒന്ന് ചിരിക്കാനോ വളരെ മടിയായിരിക്കും പുറത്തിറങ്ങിയാൽ തന്നെ ആളുകളുടെ മുഖത്ത് നോക്കാതെ ആയിരിക്കും അവർ നടക്കുന്നത് അവർ മറ്റുള്ളവരോട് മിണ്ടുകയോ ഒന്നും ചെയ്യുന്നില്ല പ്രായമായവരുള്ള വീട്ടിലാണെങ്കിലും പ്രായമായവർ സീരിയല് കണ്ട് നേരം കളയുന്നു അവർ അവരുടെ കാര്യം നോക്കിയാണ് ഇരിക്കുന്നത് കുട്ടികളോട് മിണ്ടാനോ കുട്ടികളവരോട് മിണ്ടാനോ നടക്കുന്നില്ല എല്ലാവർക്കും അവരുടേത് അവരുടേതായ കാര്യം മാത്രമുള്ളു അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആധുനിക ലോകത്ത് മലയാള ഭാഷ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ കാരണമാണ് ഇപ്പോൾ പറഞ്ഞ ഈ ആശയ വിനിമയം ഇല്ലായ്മ